പരമ്പരാഗതമായ രൂപമായ പേപ്പറും പേനയും ഉപയോഗിച്ചു എഴുതാനാണോ അതോ ലാപ്ടോപ്പില് മൊബൈലില് ടൈപ്പ് ചെയ്യാനാണോ നിങ്ങള്ക്ക് ഇഷ്ടം എനിക്ക് ഇഷ്ടം പരമ്പരാഗത രൂപമായ പേനയും പേപ്പറും ഉപയോഗിച്ചു എഴുതുന്നത് തന്നെയാണ് കാരണം നമ്മൾ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നതും ചെയ്യാം അത് അതിനകത്ത് നമ്മളുടെ ഇഷ്ടം എന്നുള്ള ഒരു കണ്സപ്റ്റ് കൊണ്ടാണ് ഞാൻ പേപ്പറും പേനയും ഉപയോഗിച്ചു എഴുതാമെന്ന് പറഞ്ഞത് എഴുതാമെന്ന് പറഞ്ഞത് കാരണം ഇത് നമ്മൾ കാലങ്ങളായിട്ട് ശീലിച്ചിട്ടുള്ള ഒരു ഒരു മെത്തേഡ് ആണ് പേന ഉപയോഗിച്ച് എഴുതി എഴുതുക എന്ന് പറയുന്ന സംഭവം അപ്പം അത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് ഇപ്പം പിന്നെ ആണ്ട്രോയിഡ് ഫോണ് സംവിധാനങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ നമ്മൾക്ക് ഇവിടെ ജനകീയമായിട്ട് വന്നിട്ട് അമ്പത് അമ്പത് വര്ഷങ്ങള് കഴിഞ്ഞെങ്കില് തന്നെ ജനം ഇത്രയും സ്വീകാര്യത ആയിട്ട് ഏകദേശം രണ്ടായിരം കാലഘട്ടത്തിലൊക്കെയാണ് ഈ മൊബൈല് ഫോണിന്റെ വ്യാപകമായ ഉപയോഗത്തിലേക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് മൊബൈല് ഫോണ് കൊടുക്കാനുള്ള നമ്മുടെ അംബാനി ഗ്രൂപ്പിന്റെ തീരുമാനമാണ് യഥാര്ത്ഥത്തില് നമ്മുടെ നാട്ടില് കേരളത്തില് മൊബൈല് സംസ്കാരം രൂപപ്പെടാനായിട്ട് വലിയ കാര്യമായി അതായത് അപ്പം ആ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു മൊബൈല് വാങ്ങിച്ചിട്ടുള്ള ആൾ കാലക്രമേണ അതിന്റെ സാധ്യതകളിൽ ആകൃഷ്ടരായി ആ ഫോൺ ഉപേക്ഷിച്ച് പുതിയ ഗാഡ്ജെറ്റുകളിലേക്ക് മാറി എന്നുള്ളതാണ് നമ്മള് കാണുന്ന ചരിത്രം അപ്പം യുവജനങ്ങളെ കൂടുതല് ഈ പറയുന്ന സംവിധാനങ്ങളിലേക്ക് അതായത് ഇലക്ട്രോണിക് മീഡിയത്തിലേക്ക് അടിപ്പിക്കുവാനായിട്ട് വളരെ വേഗം സാധിച്ചു അപ്പം അങ്ങനെ വന്നത് കൊണ്ട് ഇപ്പം നമ്മൾ ഒരു പത്ത് വര്ഷം മുന്നേയ്ക്ക് ചിന്തിക്കുകയാണെങ്കില് നമ്മൾ

കാലഘട്ടം നമുക്ക് പരിചിതമാണ് അത് അത്ര വിസ്മരിക്കപ്പെടേണ്ട കാലങ്ങളൊന്നുമല്ല ടൈപ്പ് ചെയ്യുക അപ്പം അന്ന് നമ്മൾ പന്നെ ഫേസ് ചെയ്ത ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മടെ പ്രാദേശിക ഭാഷകള് അല്ലെ അതിന്റെ തന്നെ പന്നെ ടൈപ്പ് ചെയ്യാന് സാധിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷനുണ്ട് ഉണ്ടായിരുന്നു അതിന് പകരമായിട്ട് മംഗ്ലീഷ് അതായത് മലയാളം ഇംഗ്ലീഷിലേക്ക് കണ്വേര്ട്ട് ചെയ്തു എഴുതുന്ന ഒരു ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു

എഴുതിയെടുക്കാന് പറ്റും അല്ലെങ്കിൽ എഴുതാന് പറ്റും എന്നൊള്ള ഒരു കാലഘട്ടത്തിലേയ്ക്ക് നമ്മള് വളര്ന്നു അപ്പം നമ്മൾ കൈ സ്ക്രീനില് അല്ലെങ്കില് മൊബൈലില് ടച്ച് ടൈപ്പ് ചെയ്ത് അതിന്റെയൊരു കൈ സ്പീഡൊക്കെ ആര്ജിച്ച് അത് കറക്റ്റ് ചെയ്തു എഴുതുന്ന ആ രീതി അതുകഴിഞ്ഞു ഉടനെ തന്നെ അധികം സമയം എടുക്കുന്നതിന് മുമ്പു തന്നെ നമ്മൾ സ്ക്രീനില് നമ്മുടെ മൊബൈലിന്റെ സ്ക്രീനില് എഴുതുന്നത് അക്ഷരങ്ങളായിട്ട് മാറുന്ന ഒരു സംവിധാനം വന്നു അതിനേക്കാളും ഫാസ്റ്റായിട്ട് നമ്മൾ കാര്യങ്ങള് പറയുക പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടൊ ഓട്ടോമാറ്റിക്ക് ആയിട്ട് ലെറ്റര്സ് ഐക്കണും മാറുന്ന സംവിധാനം സംവിധാനം വന്നു അങ്ങനെ നിരന്തരം ഇലക്ട്രോണിക് മീഡിയയിൽ എഴുത്ത് രൂപം മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോണ് ഇങ്ങനെ എഴുതി കൈകൊണ്ട് എഴുതി ശീലിച്ച ആള്ക്കാര്ക്ക് ഇത് അല്പ്പം ബുദ്ധിമുട്ടാണ് അല്ലെങ്കില് പുതിയ പുതിയ ആള്ക്കാര്ക്ക് ഇത് എളുപ്പവുമാണ് പക്ഷെ ഇവിടെ നമ്മൾ വിസ്മരിക്കാന് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗത്തിനായിട്ട് തന്നിരിക്കുന്ന കൈക്ക് വലിയ റോൾ ഇല്ല അതല്ലെങ്കില് പേന എഴുത്ത് ആ ആക്ഷന്ന് വലിയ റോളില്ലാതെ മാറുന്നത് മാറുന്നത് കൊണ്ട് അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട്

ടെക്നോളജി നമ്മൾ വളരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് കഴിവുള്ള പല കാര്യങ്ങളും ഇപ്പം നമ്മൾക്ക് പറ്റാന് ചെയ്യാന് പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യാന് പറ്റാതായിപ്പോകുന്നു ഇപ്പം ചുരുക്കത്തില് നമ്മൾ എഴുതുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് അടുത്ത ഒരു പത്ത് വര്ഷം കഴിയുമ്പോഴത്തേക്ക് തന്നെ നിന്നു പോകുമെന്നാണ് ഞാന് പേടിക്കുന്നുണ്ട് പിന്നെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ ഈ ഉപയോഗമില്ലാത്ത അവയവം ലോപിച്ച് പോകുന്നു എന്ന് പറയുന്ന ഒരു ഒരു ഒരു സംഭവം ഉണ്ട് അപ്പം അതുപോലെ ലോപിച്ച് നമ്മുടെ ഇപ്പം കൈയ്യക്ഷരം എഴുതാനെക്കെയുള്ള കഴിവുകളൊക്കെ ലോപിച്ച് നഷ്ടമായി പോകുമോ എന്നുള്ള ഒരു ആശങ്കയും ഞാൻ ഈ കൂട്ടത്തില് പങ്കുവയ്ക്കുന്നു എന്ത് തന്നെ ആയിരുന്നാലും ആധുനിക കാലഘട്ടത്തിന് അനുസരിച്ച് വരുന്ന മാറ്റങ്ങള് മനുഷ്യന് ഉള്ക്കൊണ്ടു ഉള്ക്കൊണ്ടേ പറ്റുള്ളൂ അത് അതിന് നമ്മൾക്ക് അത് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അതിന് അനുസരിച്ച് നമ്മൾ പോയെ പറ്റത്തുള്ളു അതും ഒരു കാഴ്ചയാണ് എങ്കിലും പേപ്പറില് നോട്ട്ബുക്കില് കൈ കൊണ്ട് നമ്മുടേതായിട്ടുള്ള ഹാന്ഡ്റൈറ്റിങ്ങും മോളില് മോഡില് എഴുതിയെടുക്കുക എഴുതുന്നതാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം ഓക്കെ